ഇന്നത്തെ കാലത്ത് നമ്മുടെ മാതൃഭാഷ എപ്പോഴും പലപ്പോഴും എല്ലാവരും ഒരു മാറി ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് കാരണം ഇപ്പം വരുന്ന കുട്ടികളെ ആണെങ്കിലും എന്താണ് സി ബി എസ് ഇ സ്കൂളുകളിലേക്ക് അയച്ച് പഠിപ്പിക്കുക അതാണ് അവരുടെ ഉന്നത നിലവാരത്തിൽ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനെ ബെറ്റർ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഭാവിയിലേക്ക് അവർക്ക് നല്ലത് ചെയ്യുക എന്നുള്ളത് അപ്പം സി ബി എസ് ഇ സ്കൂൾ എന്ന് പറയുമ്പം കൂടുതലായിട്ടും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഭാഷകളിൽ ഒന്നായ ഇംഗ്ലീഷ് ആണ് കൂടുതൽ ആൾക്കാരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ പഠിച്ച് ഇറങ്ങുന്ന അല്ലെങ്കിൽ പഴയ കാലങ്ങളായിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷമായിട്ട് ഈ ഒരു ആ ഒരു ഇംഗ്ലീഷിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ് അപ്പം അപ്പം ആ ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇപ്പോൾ മലയാളത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുവാനും വായിക്കുവാനും പലർക്കും അറിയില്ലാത്ത ഒരു സാഹചര്യങ്ങളിലാണ് നമ്മുടെ നാട് കടന്ന് പോകുന്നത് കാരണം പല സ്കൂളുകളും അതിനെ ഇത് ചെയ്യുന്നില്ല പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾ മലയാളം അവർ ജനിച്ച് വളർന്ന നാടായതുകൊണ്ട് തന്നെ അവർ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അത് എഴുതുവാനോ വായിക്കുവാനോ ഉള്ളൊരു കഴിവ് അവർക്ക് പലപ്പോഴും ഇപ്പോൾ കിട്ടാറില്ല അത് തന്നെ ആണ് ഇപ്പോൾ നമ്മുടെ ഭാഷ മലയാളം ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം